ഒരു റസ്റ്റോറൻറ് നമുക്ക് പ്രിയപ്പെട്ടതായിട്ട് മാറുന്നത് അതിൻ്റെ ടേസ്റ്റ് നമ്മളെ കൂടുതലധികം സ്വാധീനിക്കുമ്പോഴാണ് അതുകൊണ്ടുതന്നെയാണ് ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ടാണ് നമ്മൾ കൂടുതൽ റസ്റ്റോറൻറിനെ ഇഷ്ടപ്പെടുക എനിക്ക് പേഴ്സണലി റസ്റ്റോറൻറ് എന്ന് പറയുമ്പോൾ ടേസ്റ്റ് മാത്രമല്ല ഫസ്റ്റ് അതിൻ്റെ വൃത്തി നമ്മുടെ അതിൻ്റെ ആമ്പിയൻസും അതിൻ്റെ വൃത്തിയും എല്ലാം ഇംപോർട്ടൻറ് ടേസ്റ്റും എല്ലാം നോക്കിയാണ് ഒരു റസ്റ്റോറൻറ്റിനെ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ അതുപോലെ ഓരോരുത്തർക്കും ഓരോരോ രി ഇഷ്ടങ്ങൾ ആയിരിക്കും വിഭവങ്ങൾ ചിലർക്ക് നോൺ വെജ് വെ നോൺ വെജ് ആയിട്ടുള്ള ആഹാരങ്ങൾ ആയിരിക്കും ഇഷ്ടം ചിലർക്ക് വെജിറ്റേറിയൻ ഫുഡ് ആയിരിക്കും ഇഷ്ടം വിഭവങ്ങൾ കൂടുതലായിട്ടും നോൺ വെജ് ആയിട്ടുള്ള ഒരുപാട് വിഭവങ്ങളിപ്പം കൂടുതലായിട്ട് ശ്രദ്ധ നേടുന്നുണ്ട് അത് ഷവർമ അൽഫാം അങ്ങനത്തെ ബിരിയാണി കുഴിമന്തി അങ്ങനെ ഒരുപാട് നോൺ വെജ് ഐറ്റംസ് ഉണ്ട് അതുപോലെ വെജ് ഐറ്റംസ് ആണെങ്കിൽ ബട്ടൂര പൂരി ചപ്പാത്തി പനീർ കറി അതൊക്കെ കൂടുതൽ ആയിട്ട് കഴിക്കാറുണ്ട് അതുപോലെ കേരള മീൽസ് ആണെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിക്കാറുണ്ട് ഓരോ റസ്റ്റോറൻറിലേക്ക് വീണ്ടും വീണ്ടും പോകാനായിട്ടുള്ള ഒരു കാരണമെന്ന് വെച്ചു കഴിഞ്ഞാൽ അവരുടെ ടേസ്റ്റ് തന്നെയാണ് നല്ല ഫുഡ് കിട്ടുന്നിടത്ത് എപ്പോഴും പോകാനായിട്ടുള്ള ടെൻഡൻസി ഉണ്ട് അതുപോലെ നല്ല ഫുഡും നല്ല വൃത്തിയും അതുപോലെ നല്ല സർവീസും ഹോട്ടൽ ജീവനക്കാരാണെങ്കിലും അവരുടെ സർവീസും നല്ലതാണെങ്കിൽ എപ്പോഴും നമ്മൾ അവിടെ പോകും പിന്നെ കൂടുതലായിട്ട് റസ്റ്റോറൻറിൽ സമയം ചിലവഴിക്കുന്നത് കൂട്ടുകാരോടൊപ്പം ആണ് അപ്പോൾ നമ്മൾ കൂട്ടാ കൂട്ടായിട്ട് പോകുന്ന സമയങ്ങളിൽ റസ്റ്റോറൻറിൽ പോയി ഫുഡ് കഴിക്കും നല്ല നോൺ വെജിറ്റേറിയൻസ് ഒക്കെ ഉള്ളിടത്ത് ഒരുപാട് ആൾക്കാർ വരാറുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് റസ്റ്റോറൻറുകൾ ഉണ്ട് നമ്മുടെ സ്വാദിന് അനുസരിച്ചിട്ടുള്ള ഫുഡ് തരുന്ന തരത്തിൽ അപ്പോൾ അവിടുത്തെ ഏ വിഭവങ്ങൾ ഇപ്പോൾ വളരെയധികം ഉണ്ട് വളരെയധികം വൈവിധ്യമാർന്ന വിഭവങ്ങൾ ഇപ്പം നമുക്ക് ലഭിക്കും ചൈനീസ് ആണെങ്കിലും അറബിക് ആണെങ്കിലും കേരള ഡിഷസ് ആണെങ്കിലുമൊക്കെ നമുക്ക് കിട്ടുന്ന റെസ്റ്റോറൻറുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്